ആളുകൾ സംസ്ഥാനത്തെ കുറിച്ചും ഭൂശാസ്ത്രത്തെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഭൂവിസ്തൃതി അതുപോലെ തന്നെ അതിൻ്റെ ശാസ്ത്രം ഒക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും കൃഷി രീതി അതുപോലെ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റി പറ്റും ഇപ്പം എൻ എന്ത് കൃഷിയാണ് ആ മണ്ണിന് ഇണങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ രീതി അതുപോലെ തന്നെ നിയമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അതിനാ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല് നല്ലതു തന്നെയാണ്